ഒൻപത് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി നാന്നൂറ്റി മുപ്പത്ത്രണ്ട് എട്ട് ലക്ഷത്തി എൺപതിനായിരത്തി അറുന്നൂറ്റി നാല്പത്തി അഞ്ച് ഏഴ് ലക്ഷത്തി എഴുപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് ആറ് ലക്ഷത്തി നാല്പതിനായിരത്തി നാനൂറ്റിപ്പതിനാല് അഞ്ചുലക്ഷത്തി എൺപതിനായിരത്തി മുന്നൂറ്റിപ്പന്ത്രണ്ട്